അപ്പോൾ ഇന്ത്യയിലെ ജനപ്രിയമായിട്ടുള്ള കായിക വിനോദങ്ങളെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിലുള്ള കായിക വിനോദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലല്ല നമുക്ക് ലോകത്തെമ്പാടും ഉണ്ട് കാരണം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്രിക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും കളിക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും നമുക്ക് ലോകത്തുള്ള എല്ലാ ആൾക്കാരും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളാണ് ഇപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഖത്തറിൽ വച്ചിട്ട് ലോകകപ്പ് ഫുട്ബോളൊക്കെ നടന്നത് അതിനത്ത് വിജയിച്ചെന്നു പറഞ്ഞാൽ അർജന്റീനയാണ് ഇപ്പോൾ ഞാനൊരു ബ്രസീൽ ഫാനാണ് അപ്പോൾ ലോക ഫുട്ബോൾ കളി കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ പല രീതീയിലുള്ള കായിക വിനോദങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തും പക്ഷെ ഇന്ത്യായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇപ്പോൾ താഴ്ന്നു പോയിരുന്നു കാരണം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ഫുട്ബോളും കാര്യങ്ങളൊന്നും ആരും നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തിട്ട് വേണ്ട വേണ്ടാത്ത രീതിയിൽ നമ്മളെ കയറ്റി വിട്ടിട്ടില്ല അങ്ങനെ വേണമങ്കിൽ പറയാം ഈ നമ്മുടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളക്കാരെയൊക്കെ നല്ല രീതിയിൽ തഴച്ചു കളിയാക്കിയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കളിക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെയുണ്ട് അവരെയൊക്കെ നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കളിയിലൊക്കെ ചിലപ്പോൾ ഒന്നാമത് നമുക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്